റേഡിയോന്ന് വെയ്ക്കുമ്പോൾ റേഡിയോയിലെ ഇഷ്ടപ്പെട്ട പരിപാടികൾ എന്ന് പറഞ്ഞാല് ആദ്യം ആദ്യ കാലങ്ങളിലുള്ളതാണ് കൂടുതലായിട്ട് ഓർമ്മ വരുന്നത് അന്നൊക്കെ ആയിരുന്നു റേഡിയോ നന്നായിട്ട് നമ്മള് കേട്ടുകൊണ്ടിരുന്നത് അന്ന് സ്കൂളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ രാവിലെ കുറെ പരസ്യങ്ങള് കേൾക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എഫ് എം വന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ എനിക്കറിയില്ല കാരണം നമ്മള് അത്രയ്ക്ക് അങ്ങോട്ട് റേഡിയോ ഇപ്പോൾ കേൾക്കാറില്ല ആദ്യ കാലത്ത് എന്ന് പറഞ്ഞാല് രാവിലെ നിറയെ പരസ്യങ്ങൾ കേൾക്കാറുണ്ട് ഏഴര അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മള് ട്യൂഷൻ ക്ലാസ്സുകൾക്കും മറ്റോടത്തെത്തൊക്കെ പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അപ്പോഴൊക്കെ ഓരോ പരസ്യങ്ങൾ ശ്രദ്ധിക്കും അങ്ങനെയിരിക്കും നീള ബായിന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം രോഹിണി കൊപ്രാപിണ്ണാക്കിൻറ്റെ പരസ്യം ഇനി അങ്ങനെ ഗ്യാസ്ട്രോണിൻറ്റെ പരസ്യം അങ്ങനെ പലതരം പരസ്യങ്ങള് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ കുട്ടിക്കാലത്ത് ആ സമയാകുമ്പോൾ നമ്മൾ അന്നു സ്കൂളുകളിലേക്കൊക്കെ നടന്നാണ് പോകുക നടന്ന് പോകുമ്പോൾ ഓരോ വീടുകളിൽ നിന്ന് അന്നൊക്കെ എല്ലാ വീടുകളിലും റേഡിയോ ഉണ്ടാകും ഈ വീട് എന്ന് ഒരു പരസ്യം കേൾക്കുമ്പോൾ അടുത്ത പരസ്യം അടുത്ത വീട്ടിൽ നിന്ന് കേൾക്കും അങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആ അയ്യോ ആ പരസ്യമായി നമ്മളുടെ സ്കൂളില് ബെല്ലടിച്ചിട്ടുണ്ടാകും ആ സമയത്ത് ബെല്ലടിച്ചില്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങള് സമയത്തിനൊക്കെ റേഡിയോയിലെ ഓരോ പരിപാടികള് സമയം കണക്കാക്കാറുണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ് അത് പോലെ തന്നെ അന്നൊക്കെ രാത്രികളിൽ നാടകങ്ങൾ വരാറുണ്ട് നാടകമൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട് ഒര് ആഴ്ചയിലങ്ങാണ്ട് ആഴ്ച നാടകങ്ങളോ അങ്ങനെ എന്തൊക്കെ വന്നിട്ടുണ്ട് നാടകം കേൾക്കും പിന്നെ വയലും വീടും പരിപാടികളും ഉണ്ടാവാറുണ്ട് അത് പോലെ പിന്നെ നല്ല ചിത്ര ഗീതങ്ങള് ഉണ്ടാകാറുണ്ട് നല്ല പാട്ടുകള് ഉണ്ടാകാറുണ്ട് അതൊക്കെ പാട്ടൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റിയിരുന്നു ഇപ്പോൾ എഫ് എം എന്ന് പറയുന്നത് നമ്മുടെ അയൽവക്കത്തൊര് വീട്ടിൽ ഉണ്ട് അവിടെ അദ്ദേഹം രാവിലെ എണീറ്റ ഉടനെ അതങ്ങട് മഞ്ചേരി എഫ് എം ന്ന് പറഞ്ഞ് കൊണ്ട് അത് അങ്ങോട്ട് തുറന്ന് വെക്കും ഇതില് ധാരാളം പാട്ടുകളവിടന്ന് അയൽവക്കത്ത് നിന്ന് ഇങ്ങനെ കേൾക്കും പിന്നെ ടീ വി എന്ന് പറഞ്ഞാല് ടീ വി യൊന്നും വല്ലാതെ കാണാറില്ലപ്പോ ഉം ടീ വി യില് പിന്നെ ഇഷ്ടപ്പെട്ടതാണ് പിന്നെ വാർത്തകൾ കേൾക്കാറുണ്ട് അത്പോലെ കുറെ മുമ്പ് നമ്മുടെ സുരേഷ് ഗോപിൻറ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഒരു മണിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഓ ഞാൻ കോടീശ്വരൻ ആ പരിപാടി കാണാറുണ്ട് പിന്നെ സീരിയലുകളൊന്നും വല്ലാതെ കണ്ടിട്ടില്ല കുറെ കാലങ്ങളായി സീരിയലുകളൊക്കെ കണ്ടിട്ട് അത് പോലെ തട്ടിയും മുട്ടിയും എന്നുള്ള പരുപാടി കാണാറുണ്ടായിരുന്നു അങ്ങനെ ഒരു തമാശ രൂപത്തിലില്ലേ പിന്നെ ഒന്നും ഒന്നും മൂന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അത് പോലെ പിന്നെ ഉപ്പും മുളക് പിന്നെ വാർത്തകള് കേൾക്കും സിനിമകള് എന്ന് പറഞ്ഞാല് പഴയ സിനിമകളൊക്കെയാണ് ഇഷ്ടം നസീർ സാറിൻറ്റെ സിനിമ വന്നാൽ കാണും അത് പോലെ കുറെ മുൻമ്പോട്ടുള്ള സിനിമ ഒരു തൊണ്ണൂറ് രണ്ടായിരം ആ കാലഘട്ടങ്ങളില് ഉള്ള സിനിമകളൊക്കെയാണ് കാണാറുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ടീ വി യിൽ എന്ന് പറഞ്ഞാല് കുറെ മുന്നെയൊക്കെ ബിഗ്ഗ് ബോസ്സൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ കാണാറില്ല ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി അങ്ങനത്തെ പരിപാടികളൊക്ക കാണും